ഇപ്പോൾ കോഴിക്കോട് ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഒരു സിറ്റി ആണ് കോഴിക്കോട് ജില്ല കോഴിക്കോട് കോഴിക്കോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അറിയാൻ സാധ്യതയില്ല കാലിക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയാം കാലിക്കറ്റ് കാലിക്കുറ്റി അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പലതരം നെയിമുകൾ കാര്യങ്ങളൊക്കെയാണ് കോഴിക്കോട് മലബാറിൻ്റെ തന്നെ വലിയൊരു സിറ്റിയാണ് കോഴിക്കോടെന്നു വേണമെങ്കിൽ പറയാം കോഴിക്കോട് തന്നെ പലതരം നമുക്കിപ്പോൾ പലതരം ജോലി അങ്ങനത്തെ പലതരം കാര്യങ്ങളൊക്കെ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ജോലി സാധ്യത എല്ലാ കാര്യങ്ങളും കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത് ഇപ്പോൾ നല്ല രീതിയിലുള്ള പരിസ്ഥിതി സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് പലതരം എന്താ പറയുക ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ പലതരം അതായത് ഇപ്പോൾ മാലിന്യം മാലിന്യം അവിടെ ഇടാൻ പാടില്ല നമ്മളവരെ ടൗണുകളിൽ കേന്ദ്രീകരിച്ച് ആണെങ്കിലും മാലിന്യം ഇടാൻ പാടില്ല ഇപ്പോൾ ഹരിതസേനയെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൂട്ടം ആൾക്കാർ ഗവൺമെൻ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ കടകളിൽ നിന്നാണെങ്കിലും വീടുകളിൽ നിന്നാണെങ്കിലും അവർ മാലിന്യം ശേഖരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു സംരംഭം ഒക്കെ കോഴിക്കോടിലാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം കോഴിക്കോടല്ല സംസ്ഥാനത്ത് മൊത്തം ഉണ്ട് പക്ഷേ എന്നാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നല്ല രീതിയിൽ അവർ മുന്നോട്ടു വയ്ക്കുന്നുണ്ട് അതേപോലെതന്നെ കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ നമ്മുടെ നാടെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളുടെ നാടെന്നാണ് കോഴിക്കോടിനെ അറിയപ്പെടുന്നത് അപ്പം നല്ല രീതിയിൽ സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്നു തന്നെ പ്രകൃതിവിഭവങ്ങളിൽ നിന്നു തന്നെ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബിസിനസ്സ് പരമായിട്ടും വേണമെങ്കിൽ നമുക്കത് മുന്നോട്ടുകൊണ്ടുനടക്കാൻ പറ്റും ഇപ്പോൾ നല്ല രീതിയിലുള്ള കാലവസ്ഥ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് കാരണം എന്ത് വച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല രീതിയിലുള്ള ചൂട് അനുഭവിക്കാൻ തുടങ്ങി മഴയില്ല അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ട് കോഴിക്കോട് ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് ചെറിയൊരു ചൂട് വ്യതിയാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നഗരങ്ങളിൽ നല്ല രീതിയിലുള്ള മലിന ജലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അതിനെയൊക്കെ എതിരെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ വായു മലിനീകരണം കൂടുതലായിട്ടും വരുന്നത് ഈ ഫാക്ടറികളിൽ നിന്നുമുള്ള പുകയാണ് കാരണം എന്ത് വച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലതന്നെ ഒരു വലിയൊരു സിറ്റിയാണ് അപ്പം അവിടെയെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഫാക്ടറികൾ ഇഷ്ടംപോലെയുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് വരുന്ന പുകയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അവർ നിലനിർത്താൻ വേണ്ടിയിട്ട് അതായത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്